നമസ്കാരം ചേട്ടാ ഞാൻ ഇവിടെ വന്നത് ഒരു വണ്ടിയുടെ വിശദാംശം അറിയാനാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ നിന്ന് എറണാകുളത്തേക്ക് ഒരു ക്യാബിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ക്യാബിൻ്റെ വിശദാംശമറിയാനാണ് ഞാൻ വന്നത് എൻ്റെ യാത്ര വളരെ സുഖപ്രദവുമായിരുന്നു അതിലൂടെ എനിക്ക് നല്ല ആനന്ദം ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഈ യാത്രയ്ക്കിടെ ഉപയോഗിച്ച അതേ ക്യാബ് തന്നെ എനിക്ക് വേറൊരു യാത്രയ്ക്കായി ആവശ്യമുണ്ട് അതിനാലാണ് ഈ വിശദാംശത്തിൻ്റെ ആവശ്യം എനിക്കുള്ളത് അന്ന് പോയിരുന്ന വണ്ടി നല്ല വൃത്തിയും വളരെയധികം സുഖമമായും യാത്ര ചെയ്യാൻ ഉള്ളൊരു അന്തരീക്ഷമാണ് എനിക്ക് ലഭിച്ചത് അന്ന് പോയ വണ്ടി വളരെ വേഗത്തിൽ തന്നെ എന്നെ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു അതിനാൽ എനിക്ക് അടുത്തയാഴ്ച വരാനിരിക്കുന്ന വേറൊരു യാത്രയ്ക്കായി ആ വണ്ടി ബുക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അടുത്ത ആഴ്ച എനിക്ക് തൃശൂർ തൊട്ട് കോഴിക്കോട് വരെയാണ് യാത്ര ചെയ്യാനുള്ളത് അപ്പോൾ ഇതേ വണ്ടിയിൽ സുഖപ്രദമായി യാത്ര ചെയ്യണം എന്നെനിക്കാഗ്രഹമുണ്ട് അപ്പോൾ ഈ വണ്ടി അടുത്ത ആഴ്ച ഞായറാഴ്ചയിൽ വേറെ യാത്രയ്ക്കൊന്നും പോകുന്നില്ലെങ്കിൽ എനിക്ക് ലഭിക്കാൻ കിട്ടുമോ എന്നാണ് എനിക്കറിയേണ്ടത് ഈ യാത്രയ്ക്കായി ഏകദേശം എത്ര ചിലവ് വരും എന്നുംകൂടി പറയുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ ക്യാബ് ബുക്ക് ചെയ്യാൻ എന്താണ് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് ചെയ്തോളാം വണ്ടി എനിക്ക് രാവിലെ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് തൃശൂർ സ്വരാജ് ഗ്രൗണ്ടിൻ്റെ അടുത്താണ് എത്തേണ്ടത് ഞാൻ അവിടുന്ന് കയറി വൈകുന്നേരം ഒരു മൂന്നുമണിക്ക് മുമ്പെങ്കിലും കോഴിക്കോട് എത്തിയാൽ കൊള്ളാമെന്നെനിക്കുണ്ട് അപ്പോൾ ഈ വണ്ടി

ഉണ്ടാകുമോ എന്ന് അറിയാനാണ് ഞാൻ വന്നത് ഉണ്ടെങ്കിൽ ആ വണ്ടി ബുക്ക് ചെയ്യണമെന്നുണ്ട് എനിക്കാഗ്രഹമുണ്ട് എത്രയാണ് ചിലവെന്ന് പറഞ്ഞാൽ മതി